ഇന്നത്തെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും തന്നെ നല്ലൊരു ഹൈർ സ്റ്റഡീസിന് താൽപര്യപെടുന്ന കുട്ടികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ പേര് ഇപ്പോൾ യു കെ കാനഡെ ജർമനി പോലുള്ള വിദേശ രാജ്യങ്ങളൊക്കെ ഹൈർ സ്റ്റഡീസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ചുരുക്കം കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ മുതിരുന്നത് പിന്നെ ജോലിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടോണ്ടെങ്കിൽ അതും വളരെയധികം കുറച്ച്പേർ മാത്രമാണ് നമ്മുടെ ഫാമിലി ബിസ്സിനെസ്സ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റെടുക്കുന്നത് വളരെയധികം കുറച്ച് പേരാണ് കൂടുതലും പേർ എനിക്ക് തോന്നുന്നത് അവർ ഉന്നത വിദ്യാഭ്യാസം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് വിദ്ദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നവരും ഉണ്ട് പിന്നെ ഇതിൽ വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് നമ്മുടെ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് വിദ്യാഭ്യാസത്തിന് ഒന്നും പോകാതെ ഉന്നത വിദ്യാഭ്യാസത്തിനൊന്നും പോകാതെ വീട്ടിൽ വെറുതെയിരിക്കുന്നതൊക്കെ വളരെ കുറച്ച് പേരാണ് അതിൽ കൂടുതലും ചില പെൺകുട്ടികൾ വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ വിദ്യാഭ്യാസത്തിന് പോകാതിരിക്കുന്നുണ്ട് കൂടുതൽപേരും പഠിക്കാൻ പോകുന്നവരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം